ശൈത്യം കാലം നമുക്കറിയാം അത്യധികം തണുപ്പുള്ള സമയങ്ങളായിരിക്കും ശൈത്യകാലത്ത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം അതൊരു ഡിസംബർ നവംബർ ഡിസംബർ ആ കാലഘട്ടമാണ് ജനുവരി വരെയാണ് ശൈത്യകാലം പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ അത്ര തന്നെ ശൈത്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ചെടികൾ വളർത്തുന്നതിന് അത്ര അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക ശൈത്യം അത്യധികം തണുപ്പുള്ള സമയത്ത് ചെടികൾക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പം നമ്മളതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ പ്രോപ്പറായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതിലൊന്നാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇലയുടെ മുകളിൽ മൊത്തം ഐസായിരിക്കും ഐസ് ഇങ്ങനെ ഇതായി നിൽക്കും അപ്പം മര്യാദക്ക് ഫോട്ടോസിന്തസിസ് നടക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ കുറവാണ് സൺ ലൈറ്റും കുറവായിരിക്കും അപ്പ നമ്മള് ഔട്ട്ഡോ ചെടികളാണെങ്കില് നമ്മള് പരമാവധി അതൊന്ന് ജസ്റ്റ് അയിൻ്റെ എലയുടെ മുകളിലൊള്ള ഐസൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഏറ്റവും എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ ഉള്ളിലൊള്ള ചെടികളാണെങ്കില് നമുക്ക് വി ക്യാൻ ഹൗ ലൈറ്റ്സ് നമുക്ക് സൂര്യപ്രകാശത്തിന് പകരം ചൂടുള്ള എന്തെങ്കിലും ലൈറ്റ് വച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം